ഹലോ ഗൈസ് ഞാൻ പോകാൻ ബൈക്കിലൊക്കെ ഉദ്ദേശിക്കുന്ന സ്ഥലം കാശ്മീർ അങ്ങനെയൊക്കെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ പോവുന്ന സമയത്ത് എനിക്ക് കുറെ എന്താ പൈസ ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ കാട്ടിക്കുളം എന്ന സ്ഥലം വരയേ പോകുന്നുള്ളു അതാണെങ്കിൽ എനിക്ക് അൻപത് രൂപേൻ്റ എണ്ണയേ ആവശ്യം ഉണ്ടാവു കാട്ടിക്കുളത്ത് നിന്ന് നമുക്ക് കുറുവ ദ്വീപ് പോകാം കുറുവ ദ്വീപ് പോകണമെങ്കിൽ അമ്പത് രൂപേൻ്റ പോലും ആവശ്യം ഇല്ല മുപ്പത് രൂപയ്ക്ക് നമുക്ക് സ്ഥലം എത്താം പിന്നെ ഈ ബൈക്ക് പോകുന്ന കാര്യം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇവിടെ അടുത്ത് എപ്പഴും കുളിക്കാനൊക്കെ പോകുന്ന സ്ഥലവാണ് കുറുവ ദ്വീപ് കുറുവ ദ്വീപിൽ വിളി കുളിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ചൊറി പിടിച്ച വെള്ളമാണ് അതിൽ കുളിച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫീലാണ് ഗൈസ് ഏഹ് അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിലും എങ്ങനെ നോക്കുവാണെങ്കിലും എനിക്ക് അൻപത് രൂപയുടെ എണ്ണയെ ചിലവാകുന്നുള്ളു അങ്ങനെ കൂടുതൽ ദൂരത്തേക്ക് പോകണമെങ്കിൽ എൻ്റെ അച്ഛൻ എനിക്കിത് വരെ ക്യാഷ് തന്നിട്ടില്ല ഏഹ് നിൻ്റെ അച്ഛൻ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ എൻ്റെ ക്യാഷിന് തന്നെ അമ്പത് രൂപയ്ക്ക് എണ്ണ അടിച്ചിറ്റ് ഞാൻ മാനന്തവാടി വരെ ഇവിടെ നിന്ന് പോയി തിരിച്ച് വരും അത്രക്കും ഗഡ്സ് ഉണ്ട് എനിക്ക് കാരണം ബൈക്ക് അത്ര വലിയ സംഭവം തന്നെയാണ് അങ്ങനെ ഞാൻ ഓടിക്കുന്ന സമയത്ത് സൂപ്പറായിട്ടാണ് ഞാൻ ഓടിക്കുന്നത് കാരണം മൈലേജും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഓടിക്കുന്നത് പിന്നെ ഇടയ്ക്ക് എൻ്റെ പെണ്ണിനെ കൂട്ടിയിട്ടൊക്കെ അമ്പലത്തിൽ ഒക്കെ പോകുമ്പോൾ സൂപ്പർ ആണ് അങ്ങനെ അങ്ങനെ അങ്ങനെ കടന്ന് പോകുന്ന സമയങ്ങൾക്ക് നല്ല എണ്ണ ചെലവുകളും നൽകാറുണ്ട്